ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് ആവശ്യമുള്ള യൂട്ടിലിറ്റി പലപ്പോഴും കിട്ടാറുമില്ല മല മലനിരകളൊക്കെ കൂടുതലായിട്ടുള്ളതു കൊണ്ട് നമുക്ക് ഇത് എന്നാൽ മലകളൊക്കെ ഒരുപാട് നമുക്കതിനുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട് മലകൾ താഴ്വരകളും ഉള്ളതു കൊണ്ട് നമ്മളൊത്തിരി വളഞ്ഞു ചുറ്റി പോകേണ്ട സാഹചര്യം നമുക്കുണ്ട് അപ്പം അതാത് മർഗ്ഗങ്ങൾ നമ്മൾ ട്രെയ്നോ ബസ്സോ ഇടുക്കിക്കൊക്കെയാണെങ്കിൽ നമുക്ക് ട്രെയിൻ യാത്രയൊക്കെ സ്വപ്നം പോലും കാണാൻ സാധിക്കില്ല പക്ഷേ അതിനൊക്കെ പരിശ്രമിച്ചാൽ നമുക്കതിനൊരു മാർഗ്ഗമുണ്ട് നമുക്ക് ഈസി ഈസി ഗോയിങ്ങാണ് എന്നു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും പെട്ടെന്ന് പോകാനും വരാനുമെല്ലാം സാധിക്കുന്നതാണ് നമ്മൾ പിന്നെ ട്രെയിൻ യാത്രകളും അതു പോലെ ഫ്ലൈറ്റൊക്കെയാണെങ്കിൽ നമ്മളെത്രയോ ദൂരം യാത്ര ചെയ്താണ് നമ്മൾ അവിടെയെത്തി എയർപ്പോട്ടിൽ ചെന്നു കയറുന്നത് അതു പോലെ നമുക്ക് കൂടുതൽ മെട്രോകളും കൂടുതൽ റെയിൽവേ റെയിൽവേ സ്റ്റേഷനുകളും കൂടുതലായിട്ടുള്ള പല യാത്രകളും എല്ലാം നമുക്ക് സാധ്യമാകണമെങ്കിൽ അതിൻറ്റേതായ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം ഇങ്ങനൊരു സംവിധാനം രാജ്യത്തുപയോഗിക്കുന്നത് ഗതാഗത മാർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് വെല്ലുവിളികളാണത് നമുക്ക് ട്രെയിൻ്റെ സമയത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് ആ സമയത്ത് നമ്മൾ ബസ് കിട്ടണമെങ്കിലും അതു പോലെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിലും